അങ്ങനെ ഈ ഇടയ്ക്കൊരു പാലക്കാട് വെച്ചിട്ടൊരു കുടുംബശ്രീ യൂണിറ്റിൻ്റെ ആർട്ട് എക്സിബിഷൻ നടന്നിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് കലാരൂപങ്ങളുടെ അതുപോലെത്തന്നെ അവര് അവര് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ എക്സിബിഷൻ ചില നൃത്തങ്ങളൊക്കെ കണ്ടു പിന്നെ കുറേ നാടകങ്ങളുടെ അവതരണം പറയാതിരിക്കാൻ പറ്റില്ല ഏറ്റവും മനോഹരമായിട്ടുള്ള കലകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവരുപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ട് എൻ്റെ എല്ലാത്തിലും നമ്മുടെ കണ്ണ് മഞ്ഞളിച്ച് പോവും അത്രയും നല്ല നല്ല സാധനങ്ങൾ അവരിതൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ കാണാത്ത കുറേ സാധനങ്ങള് നമ്മളവിടെ കണ്ടു അവര് അവിടെ പോയപ്പോൾ അവര് പറഞ്ഞത് അതായത് കലകളിങ്ങനെയാണെന്നും ഓരോ ഘട്ടത്തിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് തരുന്നുണ്ട് അവിടെയുള്ളവര് എന്നാൽ അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ കാണാൻ നമ്മള് കൊതിച്ച് പോകും നമുക്കിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ പാലക്കാട് ഇങ്ങനെ ഒരു എക്സിബിഷൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു എക്സിബിഷന് പോവണത് നന്നായിട്ടുണ്ടായിരുന്നു പറയാതിരിക്കാനേ പറ്റില്ല ഏറ്റവും മനോഹരമായിട്ടുള്ള എക്സിബിഷനായിരുന്നു അതെന്ന് പറയുന്നത് എന്താ നല്ല നല്ല സാധനങ്ങള് ഇനിയും ഇനിയും ഇനിയും കുറേ നമ്മള് കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങള് നമുക്കവിടെനിന്ന് കണ്ട് പിടിക്കാൻ പറ്റുന്നുണ്ട് നമ്മള് നമ്മള് വിചാരിച്ചത് നമ്മള് വിചാരിക്കുന്നത് എത്ര നിസ്സാരമായിട്ടാ നമുക്ക് അവിടെ കളിക്കാൻ പറ്റുകയെന്ന് പക്ഷെ അതൊന്നും അല്ല നമുക്ക് നമ്മളറിയാത്ത കുറേ കാര്യങ്ങള് അതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മളവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഇനി ഇതേ ഇതിൻ്റെ തന്നെ കുറച്ച് വലിയൊരു എക്സിബിഷൻ കൂടെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കണമെന്ന് കുറച്ച് ആഗ്രഹിക്കുന്നുണ്ട് അവടെ പോയിട്ട് നമ്മള് അവടെ പോയി കുറേ സാധനങ്ങള് നമുക്ക് വാങ്ങാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട് അവരുടെ പഴയ പഴയ അവരുപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്ന പഴയ സാധനങ്ങളൊക്കെ അതൊക്കെ നമുക്ക് വീടുകളില് നമുക്ക് ഭംഗിക്കൊക്കെ വേണ്ടി എടുത്ത് വെക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ വാങ്ങി കൊണ്ട് വരണമെന്നുണ്ട് ഭയങ്കരാഗ്രഹമുണ്ട് അവിടെ പോകണം അവരെയടുത്തൊക്കെ പരിചയപ്പെടണം പിന്നെ പല പല കലാകാരന്മാരൊക്കെ വരാറുണ്ട് ഈ കഥകളി സംഗീതജ്ഞർമാരും കുറേ അങ്ങനെ കുറേ ആൾക്കാര് അപ്പോൾ അവരെയൊക്കെ പോയി ഒന്ന് കാണണം പരിചയപ്പെടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതാണ് ആഗ്രഹം ഇനിയിപ്പോൾ